ഹലോ നമസ്കാരം ഹലോ ആ ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ലേ ആ ഇത് വിളിക്കുന്നത് എനിക്ക് എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ പോകേണ്ടതുണ്ട് ആ അതെ ഞാൻ ഫോണിലൂടെ നോക്കിയിരുന്നു ആ സമയത്ത് എനിക്ക് അഞ്ച് മണിക്ക് അത് കറക്റ്റ് കോഴിക്കോട് എത്തുമെന്നാണ് കാണിച്ചത് ആ മുപ്പതാം തിയ്യതി പോകുന്ന മുപ്പതാം തിയ്യതി രാവിലെ അഞ്ച് മണിക്ക് സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നാണ് കാണിക്കുന്നത് അത് അതേ സമയത്ത് എത്തുമോ അതോ സാധാരണ നിലയ്ക്ക് വൈകാറുള്ള വണ്ടിയാണോ എന്നൊക്കെ അറിയാൻ ആ ഒരു ആശങ്കയിൽ വിളിച്ചതാണ് ആ സ്ഥിരമായിട്ട് വൈകാറില്ല അതെ ആ നമ്മൾ വിളിച്ചത് അത് അന്വേഷിക്കാനായിരുന്നു അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്ക് തന്നെ എത്തുമല്ലേ

നമുക്ക് കറക്റ്റ് ടൈമിന് ഇറങ്ങിയാൽ അല്ലേ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ അഥവാ വൈകും എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതിനനുസരിച്ചു നമ്മൾക്ക് മനസ്സിലാക്കിയാൽ പോരേ ഈ നേരത്തെ എത്തുമോ എന്നാൽ ഓക്കെ